ശാസ്ത്രീയ സംഗീതത്തേക്കാട്ടിലും നല്ലത് സമകാലീന സംഗീതം തന്നെയാണ് കാരണോച്ചാല് ശാസ്ത്രീയ സംഗീതം ഒരുമാതിരിപ്പെട്ടവർക്ക് അങ്ങനെ അത്ര രസിക്കത്തില്ല സമകാലീനമായിട്ടുള്ള സംഗീതമൊക്കെയാണെങ്കില് എല്ലാവർക്കും ഒരുപോലെ പാടുകയോ അല്ലങ്കിലെന്തെങ്കിലും കാര്യത്തിനൊക്കെ ഏതെങ്കിലും ഒരു ഗുമ്മ് വരണമെങ്കില് സമകാലീന സംഗീതം തന്നെ വേണം ശാസ്ത്രീയ സംഗീതമെന്ന് പറയുമ്പഴ്ത്തേക്കതിന് മറ്റുള്ളവർക്കതൊരു രാസമായിട്ട് തോന്നുന്നില്ല അത് ഇവിടെ ഈ പാടാനും ബുദ്ധിമുട്ട് കേൾക്കുന്നവർക്ക് അതൊരു അരോചകമാണ് കാരണമെന്നുവച്ചാല് ഒരു നമുക്ക് ഇഷ്ടം തോന്നത്തില്ല അപ്പോള് സമകാലീന സംഗീതമാകുമ്പഴ്ത്തേക്കിന് മറ്റുള്ളവർക്ക് ഒരു ഇന്ന് അതിൻ്റെ ഒപ്പത്തിന് താളത്തിനൊത്ത് ഇങ്ങനെ ഡാൻസ് കളിക്കാനോ അല്ലങ്കില് കേള്ക്കുമ്പോള് ഒരു മനസ്സിനൊരു ഒരു സുഖം തോന്നാനൊക്കെയായിട്ടുള്ള സംഗീതമാണ് സമകാലീന സംഗീതമായിട്ട് തോന്നുന്നത് ആ ഇത്രയൊക്കെയേ ഉള്ളു പറയാൻ അമ്പത്